ഹലോ ഇത് റെയിൽവേ അതോറിറ്റി അല്ലേ ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വർക്കല ബീച്ചിന് സമീപമാണ് ഇവിടെ ഒരു ബിസിനസ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാനായി വന്നതായിരുന്നു എന്നാൽ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കോഴിക്കോട്ടേക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാനായി യാത്ര ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും വേണം നിങ്ങൾക്കു പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ യാത്രാ തീയതി വരുന്ന മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മുൻഗണനാ ക്ലാസ്സുകളായി എ സി കോച്ച് സെലക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒറിജിൻ സ്റ്റേഷനായി തിരുവനന്തപുരം മെയിൻ സ്റ്റേഷനും ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ യാത്രാ ആവശ്യകതകൾ എല്ലാം പൂർത്തീകരിച്ച് തരണമെന്നും എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനു സഹായം തേടുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്നിവ വഴി പങ്കിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്യൂ